ദേ ഞങ്ങളുടെ കുട്ടികളുടെ സ്കൂളിൽ എന്താണ് ഫീസ് എന്ന് പറയുന്നത് എന്താണ് പറയുക സ്റ്റേറ്റിൽ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗവൺമെൻറ് പകുതി ഫീസുകൾ വേണ്ട സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ ഫീസുകളെല്ലാം ഗവൺമെൻറ് ആണ് എടുക്കുന്നത് പുസ്തകം അതെല്ലാം ഫ്രീ ആണ് ഫുഡ് അതെല്ലാം ഫ്രീ ആണ് അത്യാവശ്യമുള്ള ഒരു അല്ലറ ചില്ലറ ഫീസുകൾ മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ അപ്പം ഏറ്റവും നല്ലത് എന്താണ് പറയുക ഗവൺമെൻറ് എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് നമ്മുടെ സി ബി എസ് പോലത്തെ ഉള്ള സിലബസിലാണ് അവിടെ നമ്മൾ നല്ലൊരു ഡൊണേഷൻ കെട്ടിയാണ് സ്കു കുട്ടികളെ ചേർക്കുന്നത് അപ്പം അതിനനുസരിച്ച് അവർ അതിന് നല്ലോണം പഠിപ്പിച്ച് എന്താണ് കൊടുക്കും നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളും എന്താണ് പറയുക സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെയും എന്താണ് പറയുക മെമ്മറി പവറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും